നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക ഭാഷകളും ഗ്രാമ ഭാഷകളും മലയാളവും തമ്മിലുള്ള ഒരുപാടധികം വ്യത്യാസങ്ങൾ ഉണ്ട് കാരണം ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ വെഞ്ഞാറമ്മൂട് സംസാരിക്കുന്ന ഭാഷയും നമ്മൾ തിരുവനന്തപുരത്ത് ഒന്ന് ഒരു ഈ കവടിയാർ വെൽ വെൽ അങ്ങനെ നെയ്യാറ്റിൻകര ഒക്കെ സംസാരിക്കുന്ന ഭാഷകൾ നെയ്യാറ്റിൻകര അല്ല നമ്മുടെ ഈ സാ വേറെ വേറെ സ്ഥലത്തൊക്കെ സംസാരിക്കുന്ന മലയാളഭാഷ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് ഇപ്പം എന്തരെടേ എന്നൊക്കെ ചോദിക്കുന്ന വെ വെങ്ങാനൂ വെഞ്ഞാറമ്മൂട് ഉള്ള സംസാരം പക്ഷേ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന എന്തുവാ എന്നൊക്കെ ഈ തിരുവന തൃശ്ശൂർ ഉള്ളവർ ഒക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ലാങ്ങ് ഒക്കെ മാറും അതായത് നമ്മള ഭാഷ മലയാളം ഭാഷ മാറിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ചിലർക്ക് നമ്മുടെ ഈ ഭാഷകൾ ഈ അത് വെഞ്ഞാറമ്മൂട് ഉള്ള ഭാഷകൾ ഏറ്റവും അധികം സംസാരിച്ച് സിനിമയിൽ തന്നെ കയറിയത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും സുരാജ് വെഞ്ഞാറമ്മൂട് സുരാജ് വെഞ്ഞാറമ്മൂട് സംസാരിച്ചാണ് ഈ വെഞ്ഞാറമ്മൂടൊള്ള ഈ സ് ഭാഷ നമ്മുടെ ആയിട്ടുള്ളത് വെഞ്ഞാറമ്മൂട് മാത്രമല്ല അത് സംസാരിക്കുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര ഉള്ള ഭാഗത്തുള്ളവരും മിക്കവരും അങ്ങനെ സംസാരിക്കുന്നവരാണ് എന്നുവെച്ചാൽ പണ്ടുമുതലേ അവർ സംസാരിക്കുന്നത് ആ രീതിക്കാണ് എന്നാൽ തിരുവനന്തപുരത്ത് ഒന്ന് ഉൾനാട്ടിൽ നിന്ന് പുറമേ ഇങ്ങോട്ടൊന്ന് വന്ന് കഴിഞ്ഞാൽ അത്രയും അല്ല അതിനെക്കാട്ടിലും നല്ല രീതിയിൽ അല്ലാതെ വേറൊരു രീതിയിലാണ് അവർ സം അപ്പോൾ രണ്ട് ഭാഷകളും തമ്മിൽ വ്യത്യാസങ്ങൾ ചിലപ്പം ചില വസ്തുക്കളുടെ പേര് പോലും നമ്മൾ പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ ചിലപ്പോൾ ചില ഭാഷ ചിലതൊന്നും മനസ്സിലാവില്ല എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് തൃശ്ശൂർ പറയുന്ന ഭാ സംസാരം ഭാഷകളൊന്നും അവർക്ക് മനസ്സിലാവില്ല അപ്പോൾ തൃശ്ശൂർ ഉള്ളവർക്ക് തിരുവനന്തപുരത്ത് ഉള്ളവർ സംസാരം മനസ്സി ചില പാത്രങ്ങൾ ചില സ്ഥലങ്ങൾ ചില തുണികൾ അങ്ങനെയൊക്കെ സ്ഥാ അങ്ങനെയൊരു സാധനങ്ങളൊക്കെ നല്ല ഭാഷകളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ ചില വാക്കുകൾ മാറും അവർക്ക് മനസ്സിലാവില്ല എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം ഭാഷകൾ തമ്മിൽ നമുക്ക് ഒരു മാറ്റം വരുക ഇപ്പം നമ്മളിപ്പം തൃശ്ശൂരോട്ട് പോയാൽ നമ്മളെ ഈ ഭാഷ വന്നിട്ട് തൃശ്ശൂർ രീതിക്കാവും നം പക്ഷേ തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂർ അപ്പോൾ അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവും അവർ പിന്നെ നമ്മുടെ ഭാഷയിലോട്ടായിരിക്കും സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഏത് നാട്ടിലോട്ട് പോവുമ്പോൾ നമ്മൾ ആ ഭാഷയിലോട്ടായിരിക്കും മാറുന്നത് ഇപ്പോൾ മലയാളം തന്നെ പല രീ പലയിടത്തും പല രീതിയിലുണ്ട് കാസർഗോഡ് തന്നെ നമ്മൾ മലയാളത്തിൽ പല ഇപ്പം കർണാടക അങ്ങോട്ടുള്ള സൈഡിലൊക്കെ കന്നഡ ഭാഷ ഒക്കെ കയറി ഈ കാസർഗോഡ് ഒക്കെ വരും അപ്പം മലയാളത്തിൽ തന്നെ കന്നഡ ഒക്കെ വന്ന് ഈ ഓ ഓരോ ഫ്രൂട്ട്സിൻ്റെ പേരും ഈ സാധനത്തിൻ്റെ പേരൊക്കെ ഫ്രൂട്ട്സിൻ്റെ പേരൊക്കെ തന്നെ മാറി ഒക്കെ വരും അപ്പോൾ പിന്നെ വേറൊന്നും അവർക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവില്ലായിരിക്കും അവർക്ക് മനസ്സിലാവും ഇപ്പം ഇവിടെ പറയുന്ന പേരായിരിക്കില്ല അവിടെ പറയുന്ന പേര് ഒരു സാധനത്തിന് അങ്ങനെ പലതര വ്യത്യാസങ്ങളാണ് നമ്മുടെ ഈ പ്രാദേശിക ഭാഷകളും ഗ്രാമഭാഷകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉൾഗ്രാമത്തിൽ അതിനെകാട്ടിൽ വലിയ നമ്മുടെ ഈ ആദിവാസികൾ ഊരുകളിലൊക്കെ ഓ ഭാഷ പോലും നമുക്ക് പോലും മനസ്സിലാവില്ല മലയാളം തന്നെ ആയിരിക്കും അവർ പറയുന്നത് പക്ഷേ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലായിരിക്കും ഈ ഉൾ ഭാഷ ഉൾ ഈ ഈ ആദിവാസി ഊരിലൊക്കെ സംസാരിക്കുന്നത്